നമുക്ക് ഇപ്പം ഗവണ്മെന്റ് ആശുപത്രിയിലോ അല്ല പ്രൈവറ്റ് ആശുപത്രിയിൽ പൊയ്കോട്ടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ നമുക്ക് ക്യാഷ് കൊടുക്കണോന്നേ ഉള്ളു കാരണം നമുക്ക് അപ്പപ്പം എന്താണ് അസുഖം പിന്നെ നമുക്ക് സ്കാന് ചെയ്യാനും എക്സ്റേ എടുക്കാനും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസള്റ്റ് വരാനൊക്കെ അപ്പപ്പം സൗകര്യങ്ങളുണ്ട് വേഗം വേഗം അവര് ചെയ്തു തരും പിന്നെ അതിനൊക്കെ ഓരോ ആപ്പുകളുണ്ട് അതിൽ കയറിയാൽ മതി മരുന്നുകള് നമുക്ക് കൗണ്ട് പിന്നെ അവര് തന്നെ നമുക്ക് ഹോസ്പിറ്റലില് നിന്ന് തന്നെ എല്ലാ മരുന്നും കിട്ടും പിന്നെ എല്ലാ ടെസ്റ്റും ചെയ്യാം ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള സൗകര്യങ്ങളും റെക്കോർഡുകളും ഹെല്ത്ത് റെക്കോർഡ് ടെലി മെഡിസിന് എല്ലാം ഉണ്ട് എല്ലാ ഉപകരണങ്ങളും ഉണ്ട് ഗവണ്മെന്റിലും ഉണ്ട് അങ്ങനെ തന്നെ ഗവണ്മെന്റില് നമുക്ക് ഒത്തിരി ആള്ക്കാരുള്ളപ്പോൾ കുറെ നേരം എടുക്കും പക്ഷേ നമ്മള് പ്രൈവറ്റിൽ പോയാൽ വേഗം ചെയ്തു കിട്ടും പക്ഷേ പ്രൈവറ്റില് പോകുമ്പോൾ നല്ല പൈസയാവും ഗവണ്മെന്റിൽ പോകുമ്പോൾ പൈസയില്ലാതെ നമുക്ക് നമ്മുടെ പിന്നേ എല്ലാ കാര്യവും ചെയ്തെടുക്കാന് പറ്റും അപ്പം ആരോഗ്യ ഇതില് എല്ലാ നൂതന പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് സഹായം സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം ഒരു രോഗം വന്നിട്ടുണ്ടെങ്കില് അത് എടുത്ത് അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലില് നിന്ന് തന്നെ നമുക്ക് അത് എന്ത് രോഗമാന്നും എങ്ങനെയാണ് അതിന്റെ പ്രതിവിധി എങ്ങനെ ചികിത്സിക്കുക എവിടെയാണ് നല്ല ചികിത്സ കിട്ടുക ഇവിടുന്നു തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെയുള്ളത് നമുക്കവിടുന്നു തന്നെ ഡോക്ട്ടേഴ്സ് പറഞ്ഞു തരും കാലം മാറിയതിനനുസരിച്ചു അതൊക്കെ മാറിയിട്ടൊണ്ട്